ഈ ഈ ചോദ്യത്തിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉത്തരം പറയാൻ നമ്മളെക്കൊണ്ട് പറ്റും അത് അതായത് ഈ ആധുനിക സാങ്കേതിക വിദ്യകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ചുറ്റും ലോകവുമായിട്ട് കുറച്ചു നടക്കാൻ സഹായിച്ചോയെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ സഹായിച്ചു എന്ന് എന്നുതന്നെ നമുക്ക് പറയാൻ എന്നുതന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അതായത് ഫോണിൻ്റെയൊക്കെ വരവിനുമുന്നേ ആണെങ്കിൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും കത്ത് കത്ത് മുഖാന്തരമാണ് മറ്റുള്ളവരുമായി ആശയവിനിമയം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് അങ്ങ് അങ്ങനെയുള്ളതിൻ്റെ ആവശ്യമില്ല അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും കാര്യം ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ എടുത്തു വിളിച്ചാൽ മതി അത് മാത്രവുമല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങി സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ആൾക്കാരുമായിട്ട് കുറച്ചുംകൂടി ഒരു ബന്ധം കുറച്ചുംകൂടി ഒരു അടുക്കാൻ നമ്മളെ സഹായിച്ചു അതിൽ അതൊരു അതൊരു വലിയൊരു നേട്ടമാണ് ആ ഒരു ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ അതൊരു അതൊരു വലിയ അതൊരു വലിയ കാര്യം തന്നെയാണ് പിന്നെ പ്രതികൂലമായ സാഹചര്യം ഉണ്ടോയെന്നു വെച്ചാൽ പ്രതികൂലമായിട്ടും ഇതുണ്ട് അതായത് ഇപ്പോൾ കുട്ടികൾ തന്നെ ഇപ്പോൾ ചെറിയ കുഞ്ഞി പിള്ളേരാണെങ്കിലും ഒരുപാടുനേരം ഇപ്പോൾ ആ പഠിക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ പഠിക്കുക ഒന്നും ചെയ്യാതെ ഫുൾ ടൈം ഫോണിൽ ഒരു അഡിക്റ്റായി വരുന്ന സാഹചര്യമുണ്ടോ അതൊരൂ അതൊരു അതൊരു അതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഓവറായിട്ട് ഫോൺ ഇൻവോൾവായി ഇൻവോൾവായി ഈ മറ്റ് മറ്റു ബന്ധങ്ങളൊന്നും അല്ല ഫിസിക്കലായിട്ട് ആരെയും പോയി കാണുകയും പറയുകയും സംസാരം ഒന്നും ചെയ്യാതെ തന്നെ ഒരു ഒരു റൂമിലിട്ട് അടച്ചു പൂട്ടിയിരുന്ന് ജസ്റ്റ് മറ്റ് ആൾക്കാർ തമ്മിൽ ഒരു കോൺടാക്ട് എന്നൊന്ന് പറയുന്നത് ജസ്റ്റ് മെസ്സേജ് അയപ്പും മാത്രമായി മാറുന്ന ഒരൂ ഇത് ഒരു ഓവേർസ് ഓവർ അണ്ടർ സിറ്റുവേഷനാണ് അത് ഇച്ചിരി ഡെയിഞ്ചറാണ് അതല്ലാതെ എല്ലാം ഒരു ഒരു ബാലൻസായിക്കൊണ്ട് കുഴപ്പമില്ല ഇന്നൊന്നും നേരിടുന്ന പ്രശ്നം അതാണല്ലോ ഇപ്പോൾത്തന്നെ ന്യൂസ് ചാനലൊക്കെ വെച്ചു നോക്കിയാൽ തന്നെ പബ്ജി കളിക്കാൻ പബ്ജി കളിക്കാൻ സമ്മതിക്കാത്തതിന് അപ്പനെ തല്ലിക്കൊല്ലുന്നു അമ്മയെ തല്ലിക്കൊല്ലുന്നു അത് അതുകൂടാതെതന്നെ വാർത്തകളാണ് മൊത്തവും മിക്കപ്പോഴും ന്യൂസിലൊക്കെ വരുന്നത് ഇതൊക്കെ ഇതിൻ്റെയൊരു ഇതിൻ്റെ ഒരു ഇഫക്ട് ഇതിൻ്റെയൊക്കെ ഒരു ഇഫക്ട് പോലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഓവറായിട്ട് ഫോണിലൊക്കെ ഒത്തിരിതായി അഡിക്റ്റായിയിരിക്കുന്നതിൻ്റെ ഇത് അപ്പോൾ ഇതൊക്കെ നല്ലതാണോയെന്ന് ചോദിച്ചാൽ ഒരർത്ഥം നല്ലതാണ് എന്നാൽ ഇതൊരു ദോഷമായ മോശം ഇഫക്ട് ആണോയെന്ന് ചോദിച്ചാൽ ഇതിന് മോശമായ ഒരു വശമുണ്ട് ഇതിനൊക്കെ അതുതന്നെ എനിക്കൊരു മോശമായ മോശം എഫക്ടാണ് കൂടുതലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം മറ്റുള്ള ശീലമായിട്ടുള്ള സംരംഭം കുറഞ്ഞു ഫോണിൽക്കൂടെ ജസ്റ്റ് ചാറ്റ് വഴി ബന്ധങ്ങളൊക്കെ അതായത് ഈ ചാറ്റെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ പുതിയ തലമുറ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് അതുപോലുള്ള ആപ്പൊക്കെ ഇതുള്ളൂ പഴയ തലമുറയ്ക്ക് നല്ല ശതമാനം പേര് ഇപ്പോഴും ഇതിനെപ്പറ്റി ഒന്നും അറിയാറില്ല അവർ അവർക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല അറിയാൻ മേല അവർക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അപ്പോൾ അങ്ങനെ തന്നെ അതുകൊണ്ടുതന്നെ ഇപ്പോൾ എൻ്റെ ഇപ്പം രണ്ട് ജന ഇപ്പോൾ രണ്ടു ജനലക്ഷം തന്നെ ഇപ്പോൾ അപ്പനും മക്കളും ആണെങ്കിൽ തന്നെ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് അതിൻ്റെയൊരു എഫക്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഫോണിലോട്ട് ഒതുങ്ങിക്കൂടി കൂടിക്കൂടി ഇപ്പോഴുള്ളവർക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ പൊതു സമൂഹത്തിൽ പോകുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ഉദാഹണം പറഞ്ഞാൽ കടയിൽ പോയി എന്തെങ്കിലും സാധനം മേടിക്കാൻ പറഞ്ഞാൽ അവിടെച്ചെന്ന് എന്തു പറയണം എങ്ങനെ സാധനം മേടിക്കണം എന്നു നല്ല അത് അത് അതുപോലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ടുതന്നെ എല്ലാവരും ബാലൻസിംഗിൽ പോകുന്നതായിരിക്കും എല്ലാം നല്ലതാണ് എല്ലാം വേണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം വെച്ചാൽ സോഷ്യൽ മീഡിയയില്ലാതെ നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എല്ലാത്തിനും ഒരു എന്തോരം ബാലൻസിംഗ് വേണം ദോഷമായിട്ട് ഇഫക്ട് ചെയ്യാൻ പാടില്ല സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പാണൊ അതോ ശേഷമാണൊ ഏറ്റവും നല്ല കാലം എന്നു ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചെടുത്തോളം ഒരു ഒരൂ രണ്ടായിരത്തിനുശേഷം ജനിച്ച ആളാണ് ഞാൻ എന്നെ എന്നാൽപ്പോലും എൻ്റെ വിവരം വച്ച് സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പുള്ള കാലമാണ് ഏറ്റവും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ശരിയാണ് ആശയവിനിമയ കമ്മ്യൂണിക്കേഷൻസൊക്കെ പണ്ട് ഒരുപാട് കുറവാണെങ്കിലും നമ്മൾ ഫിസിക്കൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന ഒരു ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ സോഷ്യൽ മീഡിയയും മറ്റേ ഇതിൻ്റെയൊക്കെ വരവോടു കൂടി പൂർണ്ണമായി നിന്നുപോയി ഇതൊക്കെ ഒരു അതൊരു വളരേ ഒരൂ ഒരു ഭയാനകമായ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോവുന്നത് അതായത് ഒരു വീട്ടിൽ താമസിച്ചാൽപ്പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല ജസ്റ്റ് രണ്ട് മുറിക്കപ്പുറം താമസിക്കുന്നവരാണെങ്കിൽപ്പോലും ഫോൺ ചെയ്ത് വിളിച്ച് അപ്പോൾ ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഫോൺ ചെയ്തു വിളിക്കുന്ന അവസ്ഥയെന്നൊക്കെ പറയുന്നത് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുന്ന അവസ്ഥയെന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്